കേരളത്തിലെ ദേശീയ ഉത്സവമാണ് ഓണം ഓണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങള്ക്കെല്ലാവർക്കും അറിയാം കാരണം അത്തം തൊട്ട് പത്ത് ദിവസം നമ്മള് പൂക്കളമിടും പൂക്കളമിടുന്നുവെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒന്ന് ഒരു ആ അത്തത്തിൻ്റെയന്ന് ഒന്നാ ഒരു പൂവേ ഇടുകയുള്ളൂ പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ പത്ത് ദിവസം പത്ത് കളറോടുകൂടി പൂക്കളമിടും അതാണ് ഓണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ പ്രിയപ്പെട്ട ഒരു ഇതാണ് വിശേഷമാണ് കാരണം എല്ലാ കുട്ടികളും കുളിച്ച് രാവിലെ കുളിച്ച് പൂവ് പറിക്കുന്നു പൂവ് പറിച്ച് മുറ്റം മെഴുകിയതിന് ശേഷം പൂവിടുന്നു പൂവിട്ട് കഴിഞ്ഞിട്ട് അവര് സ്കൂളില് പോകും പിറ്റേ ദിവസത്തേക്കുള്ള പൂവ് വൈകുന്നേരം തന്നെ പറിച്ച് ശേഖരിച്ചവര് വെയ്ക്കും അതുപോലെതന്നെ ഓണം പത്താം ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ഭയങ്കരം സദ്യയൊക്കെ ഒരുക്കി നമ്മള് ഓണത്തിന് എന്താണ് പറയുക ഓണം ഒരു പിന്നെ കേരളീയര് ഉത്സവമായിട്ട് തന്നെയാണ് നമ്മള് കൊണ്ടാടുന്നത് കാരണം അത്രയും ഓണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കില് ഓണം പഴയ കാലങ്ങളിൽ ഓണത്തിന് മക്കള് എന്തിലാണ് പൂവ് മറ്റേ തൊപ്പി പോലെയുണ്ടാക്കി ഇല പറിച്ച് തൊപ്പി പോലെയുണ്ടാക്കി പൂവ് പറിക്കും ഇപ്പോള് ആരെങ്കിലും പൂവ് പറിക്കാൻ പോകുന്നുണ്ടോ ആരും പൂവ് പറിക്കാനൊന്നും പൊകുന്നില്ല എല്ലാവരും വിലയ്ക്ക് വാങ്ങും ഇടും പണ്ടങ്ങനെയല്ല എല്ലാ വീടുകളിൽ നിന്നും മക്കളെല്ലാവരും കൂടി ഒന്നിച്ചുപോയി അരിപ്പൂവും കൊങ്ങിണിപ്പൂവും അങ്ങനത്തെ പല പൂവുകള് കിട്ടും ഡെയിലി തെച്ചിപ്പൂവ് ഇപ്പോള് അധികം ബെന്ധികള് മേടിക്കാന് കിട്ടും പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പൂവ് പറിച്ചിട്ട് ഇഷ്ടം മാതിരി പൂവായിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞാല് ഒരു ഒരു കൊളുന്ത് പൂവിന് തന്നെ കൊടുക്കണം പത്തു നൂറു രൂപ പണ്ടത്തെ കാലത്തതൊന്നും വേണ്ട പണ്ട് ഇഷ്ടം മാതിരി നമുക്ക് പൂവ് കിട്ടുമായിരുന്നു കാടുകളില് തോറും പൂവുകള് വിരിയുമായിരുന്നു ഇപ്പോള് പൂവ് വിരിയുന്നുണ്ടോ ഇപ്പം കാലം മാറി പൂവുമില്ല ഒന്നുമില്ല ഓണം ആഘോഷിക്കും എല്ലാവരും